പാലക്കാട് ജില്ലയില് ശ്രദ്ധേയമായ ലാൻഡ് മാർക്കുകളെന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങള് കോട്ടകള് മ്യൂസിയങ്ങളക്കെണ്ട് കോട്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പാലക്കാട് കോട്ട ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ട് അത്തിപ്പറ്റ അതുപോലെ തന്നെ കാവശ്ശേരി പിന്നെ മംഗലം ആയിക്കാട് അങ്ങനെ അവിടെയുള്ള കുറെ ക്ഷേത്രങ്ങളൊക്കെയുണ്ട് ഞമ്മള് പോകാൻ പറ്റണത് ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാണെന്ന് പറഞ്ഞാൽ അവർക്ക് സൺഡേ മാത്രമെ ചിലപ്പം ലീവ് കിട്ടുകയുള്ളു അപ്പം ആ സമയത്ത് അവര് കൂടുതല് സ്പെൻറ്റ് ചെയ്യുന്നത് ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്ന് ചോദിച്ച് പറഞ്ഞാൽ

ഗ്യാസ് ഫോറെസ്റ്റ് മ്യൂസിയത്ത് അല്ലെങ്കിൽ പറമ്പിക്കുളം കടുവ സങ്കേതത്തിൽ നെല്ലിയാമ്പതി സീതാർകുണ്ഡ് വ്യൂ പോയിൻറ്റ് അവിടെയൊക്കെയാണ് കൂടുതൽ കാണാൻ നല്ല പീസ് ഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെയാണ് നെല്ലിയാമ്പതിയൊക്കെ നല്ല സ്ഥലമാണ് ഒരു ഒരുപാട് കാണാനുള്ളൊരു സ്ഥലം തന്നെയാണ് നെല്ലിയാമ്പതി നമ്മളെ നമ്മുടെ സ്ട്രെസ്സക്കെ നമുക്ക് മാറ്റാൻ പറ്റിയൊരു പ ഒരു വ്യൂ തന്നെയാണ് അവിടെ ഉണ്ടാവുക ഞമ്മക്ക് കുറെ കാണാനുണ്ട് നല്ല പോലെ കണ്ട് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാം അങ്ങനെയൊക്കെ കുറെ ഉള്ള സ്ഥലമാണ് ഉള്ളത് കൂടുതൽ ശ്രദ്ധേയമായ സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ പാലക്കാട് ഫോർട്ട് പിന്നെ മ്യൂസിയങ്ങളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളാണ് അവിടെയുള്ളത്